എന്റെ പ്രോഡക്ട്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണ് ആണ് അപ്പോൾ മൊബൈൽ ഫോൺ നല്ലരീതിയിലുള്ള യൂസാണെങ്കിൽ ബെറ്ററയിട്ടുള്ള നമുക്ക് റിസൾട്ട് കിട്ടും നമുക്കിപ്പോൾ കൂടുതലായിട്ടും കൊവിഡ് സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും ഇപ്പം നമ്മളെ നമുക്കിപ്പോൾ കോവിഡ് സമയത്ത് വെറുതെയിരിക്കുന്ന ഒരു സമയമാണല്ലോ ആ സമയത്തൊക്കെ മൊബൈൽ ഫോണിനെ കൊണ്ട് നല്ലൊരു ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്നതു മൊബൈൽ ഫോൺ വഴിയാണ് ആ സമയത്ത് മൊബൈൽ ഫോണില്ലാണ്ട് കുറേ പേർ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മൊബൈൽ ഫോൺ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ച് കുറേ പേർ ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ബട്ട് എനിക്കങ്ങനെത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കാരണമെന്നുവെച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണിണ്ട് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് പഠിക്കാനാണെങ്കിൽ തന്നെ മൊബൈൽ ഫോൺ ഞാൻ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കാര്യമായിട്ട് നല്ല അടിപൊളി ആയിട്ട് പഠിക്കാനും പറ്റുന്നുണ്ട് നല്ലരീതിയിലുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവെ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇതാണ് പ്രോഡക്റ്റാണ് ഈ മൊബൈൽ ഫോണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ഈ പ്രോഡക്റ്റ് മൊബൈൽ ഫോണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമുക്കെന്തെങ്കിലും സിനിമ കാണാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് യൂസാണ്